ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു ഷർട്ട് ഓർഡറ് ചെയ്തിരുന്നു ഞാൻ ഫ്ളിപ്കാർട്ടിന്നാണേ ഓർഡറ് ചെയ്തത് പക്ഷേ അത് എനിക്കൊര് കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരന്നു ഞാനത് ഓർഡറ് ചെയ്ത ഞായറാഴ്ച ആയിരുന്നു എനിക്കത് ആവശ്യമുണ്ടായിരുന്നെ പക്ഷേ ഞാന് ഫ്ളിപ്കാർട്ടില് അതിൻ്റെ മാനുവൽ തപ്പി നോക്കിയപ്പോള് അതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കിയപ്പം അത് എത്തുന്നത് ബുധനാഴ്ചതേക്കിനെ എത്തതുള്ളൂ എന്ന് പറയുന്നു ഞായറാഴ്ച കിട്ടേണ്ട സാധനം എനിക്ക് ബുധനാഴ്ച കിട്ടിയതുകൊണ്ട് പ്രയോജനമില്ല എൻ്റെ പരുപാടി കഴിഞ്ഞ് പോവും അത് കാരണം ഞാനത് ക്യാൻസൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിന് എന്താണ് ചെയ്യേണ്ടത് അത് അതിൻ്റെ ആ ആപ്ലിക്കേഷനിൽ കയറി ഞാൻ അതിൽ നിന്ന് ക്യാൻസലേഷനിൽ ചൂസ് ചെയ്തപ്പോൾ അതിന് ലെയിറ്റായിട്ടാണ് കാണിക്കുന്നത് അത്കൊണ്ട് അതിൻ്റെ ആപ്ലിക്കേഷനിൽ നിന്ന് ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ് ക്യാൻസലേഷൻ ചെയ്യുകയാണ് എനിക്ക് ആ സാധനം ആവശ്യമില്ല യഥാ സമയത്ത് സാധനം കിട്ടാത്തത് കൊണ്ട് ഞാന് എൻ്റെ ഓർഡറ് ക്യാൻസല് ചെയ്യുകയാണ്